ആ അതേലോ ഇതാരായിരുന്നു ആ ഓക്കെ മാമ് എന്തായിരുന്നു വേണ്ടത് ഓക്കെ മാമ് ഇവിടെ ഹിൽ സ്റ്റേഷൻസ് എന്ന് പറയാൻ നമുക്ക് ഒരുപാട് ഓപ്പ് ഓപ്ഷൻസുണ്ട് മാമിന് എവിടെയാണോ വിസിറ്റ് ചെയ്യേണ്ടെ അവിടെ നമ്മളെത്തിക്കാവുന്നതാണ് മാമ് എത്ര ദിവസത്തേക്കാണ് വരുന്നത് ഓക്കെ മാമ് ഒറ്റയ്ക്കാണോ അതോ ഫാമിലി ഉണ്ടോ ഓ ഓക്കെ മാമ് എത്ത് ഈ അഞ്ചാറ് ദിവസത്തേക്കാണല്ലേ വേണ്ടത് അപ്പം മാമിന് സ്റ്റേയും കാര്യങ്ങളൊക്കെ എവിടെയാണ് നോക്കുന്നത് കോഴിക്കോട് തന്നെയാണോ നോക്കുന്നത് നല്ല ആമ്പിയൻസിലുള്ള സ്ഥലത്തേക്കാണോ നോക്കുന്നത് ഓക്കെ മാമ് നമുക്ക് എല്ലാം നോക്കീട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മള് ചെയ്ത് തരുന്നതാണ് മാമിന് എവിടേക്കാണ് പോകണ്ടേന്ന് ലിസ്റ്റ് മാമ് നോക്കീട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ നല്ല ഓപ്ഷൻസൊക്കെ നോക്കിയിട്ട് നമ്മളും മാമിന് കുറച്ച് ഓപ്ഷൻസ് ഉള്ള ഫോട്ടോയൊക്കെ അയച്ച് തരുന്നതാണ് മാമ് അതെല്ലാം നോക്കിയിട്ട് മാമിന് എവിടെയാ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളവിടെയെല്ലാം കൊണ്ട് പോകുന്നതാണ് മാമിനും മാമിൻ്റെ ഫ്രണ്ട്സിനും പിന്നെ മാമിന് വേണ്ട അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളും എല്ലാം മാമിന് ഓക്കെയാണെങ്കിൽ നമ്മള് തന്നെ ചെയ്യുന്നതാണ് നമ്മള് ട്രാവൽ ഏജന്റ് വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ചെയ്യുന്നവരാണ് അപ്പം ഇപ്പം എല്ലാം റിസോർട്ടും എല്ലാം നമ്മടേയ് നമ്മടടുത്തു തന്നെ ഉണ്ട് അപ്പം മാമിന് സ്റ്റേ ചെയ്യാൻ നമ്മടടുത്ത് തന്നെ നിക്കുവൊക്കെ ചെയ്യാം മാമിന് താത്പര്യമുണ്ടെങ്കിൽ അതും നമ്മള് തന്നെ ഏറ്റെടുക്കുന്നതാണ് പെർ പേഴ്സണ് അയ്യായിരം രൂപയാണ് പെർ ഡേ വരുന്നത് സോ അതിൻ്റെ ഇടയില് ഈ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ട്രാവൽ എക്സ്റ്റി എക്സ്പെൻസും എല്ലാം വരുന്നുണ്ട് അപ്പം മാമ് നോക്കിയിട്ട് ഓക്കെയാണെങ്കിൽ പറഞ്ഞാൽ മതി മാമിന് വേണമെങ്കിൽ റിസോർട്ടിൻറേം അതിൻ്റെ അടുത്ത ഫുഡും കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ആയച്ച് തരുന്നതാണ് ഓക്കെ മാമ് മാമിനിപ്പം യാ അഞ്ചാറ് ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട്സും അഞ്ചാറ് ദിവസം തന്നെ നമ്മുടെ കൂടെ സ്റ്റേയില് ഉണ്ടാവില്ലെ ഓക്കെ മാമ് മാമ് ഹിൽ സ്റ്റേഷൻസ് മാത്രമാണോ അതോ ബാക്കിയുള്ള എല്ലാ പ്ലേസുകളും വിസിറ്റ് ചെയ്യാനാണോ അതായത് ഇപ്പോൾ വയനാടും പിന്നെ തൃശ്ശൂര് അങ്ങനെ പല ഭാഗങ്ങളും പല സ്ഥലങ്ങളും ഒക്കെയുണ്ട് അപ്പം മാമ് അവിടൊക്കെ നോക്കുന്നുണ്ടോ ആണോ ഓക്കെ മാമ് അപ്പം മാമ് എന്നാണ് വരുന്നത് ഈ മാസം ഫർസ്റ്റ് തന്നെ വരുവോ അതോ അവസാനത്തേക്കാണോ ഓക്കെ മാമ് അപ്പം ഫിഫ്റ്റീന്തിന് കൺഫേം ആണോ മാമ് ഓക്കെ അപ്പം മാമ് ഇനിയിപ്പോൾ വേറെ ഏജൻസിയൊന്നും നോക്കുന്നില്ലല്ലോ നമ്മുടെ ഇടയിൽ തന്നെ ഫിക്സാണോ അപ്പം ഇതിൻ്റെ ഒരു ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമുക്കൊരു കുറച്ച് ക്യാഷ് പേയ്മെന്റ് അഡ്വാൻസ് കൊടുക്കണ്ട ഉണ്ട് മാമിന് ഓക്കെയാണെങ്കിൽ അതൊന്ന് പേയ്മെന്റ് ചെയ്യാമോ ഞനെന്തായാലും ഇപ്പം അതിൻ്റെ ആ മതി മതി ഞാനതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ച് തരാം മാമിന് ഏതാ ഓക്കേന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നമ്മള് അത് വെച്ച് അറേഞ്ച് ചെയ്ത് തരുന്നത് ആയിരിക്കും ആ ഓക്കെ മാമ് മാമിന് നല്ല ആമ്പിയൻസുള്ള കുറച്ച് പ്രകൃതിയോടൊക്കെ ഇണങ്ങിയിട്ടുള്ള പ്ലേസുകളാണോ നോക്കുന്നത് ഓക്കെ മാമ് നമ്മളെന്തായാലും മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ നമ്മള് ചെയ്യുന്നതാണ് മാമിന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് നോക്കുന്നത് ഓക്കെ മാമ് ശരി എന്നാൽ ഓക്കെ താങ്ക്യൂ മാമിന് ഈ നമ്പറില് കോണ്ടാക്ട് ചെയ്താൽ മതിയോ ഓക്കെ മാമ് ഇതിലേക്ക് വാട്സപ്പ് ചെയ്തേക്കാം കെട്ടോ ഓക്കെ മാമ് താങ്ക്യൂ